ഹലോ ഇത് പുതിയതായി തുടങ്ങിയ റസ്റ്റോറൻറ് അല്ലേ ആ എനിക്ക് നിങ്ങളുടെ മെനു എന്തൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ആ അപ്പോള് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഹോം ഡെലിവറി ഉണ്ടോ നിങ്ങൾ വീട്ടിൽ എത്തിക്കുമോ പെയ്മെൻ്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യണോ അതോ ഡെ ഡെലിവറി ചെയ്യുമ്പോള് ചെയ്താല് മതിയായിരിക്കുമോ എനിക്ക് കുറച്ച് ഒരു നാലുപേരുടെ ഫുഡ് ഒന്നിച്ച് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ ആയിരുന്നു ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് അല്ലാതെ നാലുപേരുടെ ഒന്നിച്ച് പാക്ക് ചെയ്ത് കൊടുത്തു വിടാവോ എന്ന് ചോദിക്കാനായിരുന്നു ഓക്കേ പെയ്മെൻ്റ് ബില്ല് കൊടുത്തുവിട്ടാൽ ഞാൻ ഇവിടെ നിന്ന് ക്യാഷ് ആയിട്ട് പെയ്മെൻ്റ് ചെയ്തേക്കാം ഓക്കേ അതുപോലെ വേറെ നിങ്ങളുടെ എന്താണ് സ്വീറ്റ് ഡിഷസ് ഒക്കെ എന്തൊക്കെയാണ് ഉള്ളത് ഓക്കേ ഓക്കേ ഡെസേർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് ആ എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഈ കൊണ്ടുവരുന്ന പ ആളിന് വേണമെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കുക അവിടുന്ന് സാ ലെഫ്റ്റ് ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയുക ഇവിടെ വരുന്ന സമയത്ത് വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ അത് കളക്ട് ചെയ്തോളാം ഓക്കേ താങ്ക് യു